നമ്മളെ ഇവിടത്തെ എം എൽ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പി കുമാരൻ എന്നു പറഞ്ഞൊരു ആളാണ് നമുക്ക് എം എൽ എ എന്നു വേണമെങ്കിൽ പറയാൻ പറ്റും കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു ഇപ്പോഴത്തെയല്ല ഒരു ആയിരത്തിത്തൊള്ളായിരത്തി അയിമ്പത്തിയാറ് ആ ടൈമിലുള്ളൊരു ആളായിരുന്നു പി കുമാരൻ എന്നു പറഞ്ഞത് ഇപ്പോഴത്തെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദ് ദേവർകോവിൽ എന്നു പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ് കാരണമെന്നു വച്ചു കഴിഞ്ഞാൽ പുള്ളിയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണമെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുണ്ട് ഇപ്പോൾ അവരുടെയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപഴകിയിട്ടൊന്നുമില്ല പക്ഷേ ഇവരൊക്കെയായിട്ടും കണ്ടിട്ടൊക്കെയുണ്ട് പക്ഷെയെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാർ ഭരിക്കുന്ന ഓരോ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണെമെന്തെന്ന് വച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന സ്ഥലം നമ്മൾക്ക് എൽ ഡി എഫിന്റെ കൈയിലായി അങ്ങനെ പല രീതിയിലും മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോ തരത്തിലും നമുക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണമെന്തെന്ന് വച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാർ ഭരിക്കുന്ന നമുക്ക് മെമ്പർമാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പി ബാലൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് നമ്മുടെ ഇവിടുത്തൊരു മെമ്പറായിട്ട് ഉള്ള ഒരാൾ പുള്ളിയായിട്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് പല രീതിയിലുള്ളവരും ആയിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം